ഇപ്പോഴത്തെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വെറും പുസ്തകത്താളുകളില് മാത്രം ഒതുങ്ങുന്ന ഒരു വിദ്യാഭ്യാസ രീതിയാണ് ഇപ്പോഴത്തെ സമൂഹത്തിൽ നമ്മൾ കണ്ടു വരുന്നത് പക്ഷേ ഈയൊരു വിദ്യാഭ്യാസ രീതി എന്തുകൊണ്ടും മാറേണ്ടതാണ് എപ്പോഴും നമ്മൾ തൊഴിൽ അധിഷ്ഠിതമായിട്ട് വിദ്യാഭ്യാസം നൽകണം അത് എന്ത് തൊഴിൽ തന്നെയായാലും പണ്ടൊക്കെ ആണെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങളും സ്കൂളുകളിൽ ചെറിയ ചെറിയ തൊഴിൽ അധിഷ്ഠിതമായ കാര്യങ്ങൾ പഠിപ്പിച്ചു വരികയും ഉണ്ടായിട്ടുണ്ട്

ഇത് കൂടുതലായി കണ്ടു വരുന്നത് ഗവൺമെന്റ് സ്കൂളുകൾ എടുത്തു നോക്കിയാൽ കുറച്ചൊക്കെ മാറ്റങ്ങൾ നമ്മൾ കണ്ടു വരുന്നുണ്ട് പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ തൊഴിൽ അധിഷ്ഠിതമായി വിദ്യാഭ്യാസം കുട്ടികൾക്ക് നൽകണമെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അതിപ്പോൾ എന്ത് തൊഴിലായാൽ തന്നെ അവർക്ക് വരയ്ക്കാനും അവരൊക്കെ തുന്നൽ പഠിക്കാനോ അല്ലെങ്കിൽ മറ്റു കോഴി വളർത്തൽ ആയാലും മൃഗസംരക്ഷണമായാലും മറ്റ് അങ്ങനെയുള്ള തൊഴിൽ നമ്മൾ എപ്പോഴും കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം എന്തെന്ന് വെച്ചാൽ ഈ ഒരു നമ്മൾ പുസ്തകത്താളുകളിൽ നിന്ന് പഠിക്കുന്ന വിദ്യകൊണ്ട് മാത്രം നമുക്ക് ജീവിക്കാൻ പറ്റും എന്ന് യാതൊരു ഉറപ്പുമില്ല അങ്ങനെ ജീവിക്കാൻ ആണെങ്കിൽ വിദ്യാഭ്യാസം മാത്രം നമ്മൾ നേടിയാൽ മതി അല്ലാതെ മറ്റുള്ള തൊഴിലോ അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങളോ നമ്മൾ പഠിക്കേണ്ടതില്ല എൻ്റെ ഒരു അഭിപ്രായത്തെ മറ്റുള്ള തൊഴിലും കൂടി കുട്ടികൾ പഠിച്ചിരിക്കേണ്ടതുണ്ട് എന്നാൽ മാത്രമേ അവരു ഒരു ജീവിതം മുന്നോട്ട് പോയി അല്ലെങ്കിൽ മുന്നോട്ട് അത് നല്ല രീതിയിൽ പുരോഗമിച്ച് അവർക്ക് ജീവിതം നല്ലൊരു രീതിയിൽ സഫലീകരിക്കാൻ സാധിക്കുകയുള്ളൂ അതുമാത്രമല്ല ഈ തൊഴിൽ അധിഷ്ഠിതമായ വിദ്യാഭ്യാസം നമ്മളുടെ സ്കൂളിൽ കൊണ്ടു വരികയാണെങ്കിൽ കുട്ടികൾ കൂടുതൽ കൂടുതൽ അവരുടെ ചിന്താഗതി അല്ലെങ്കിൽ അവരുടെ ക്രിയേറ്റിവിറ്റി കാര്യങ്ങൾ ഒക്കെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിലൂടെ മനസ്സിലാക്കാനും പഠിക്കുവാനും സാധിക്കും അത് മാത്രമല്ല നമ്മൾ ഒരുപാട് ഈ ഒരു തൊഴിലധിഷ്ഠിതമായ വിദ്യാഭ്യാസം ആണെങ്കിൽ അവർക്ക് തൊഴിൽ ചെയ്യാനുള്ള ഒരു മടിയും മാറി കിട്ടും ഇവർ ഒരുപാട് കുട്ടികൾ പറയുന്നത് കേട്ടിട്ടുണ്ട് സ്കൂളുകളിൽ വിദ്യാഭ്യാസം മാത്രം ആയതുകൊണ്ട്തന്നെ അവർക്ക് സ്കൂളിൽ പോകാൻ ഉള്ള ഒരു താൽപര്യം തന്നെ കുറഞ്ഞു വരുന്നുണ്ട് എന്ന് അവര് പുസ്തകത്താളുകളിൽ മാത്രം കിട്ടുന്ന അറിവുകൾ കേന്ദ്രീകരിച്ച് ആണ് അവർ സ്കൂളിൽ പോകുന്നതും തിരിച്ചു വീട്ടിലേക്ക് വരുന്നത് അതുകൊണ്ട്തന്നെ കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ ഒരു താൽപര്യം കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട് ഈയൊരു കാര്യം നമ്മളുടെ സ്കൂളിൽ അല്ലെങ്കിൽ തൊഴിൽ അധിഷ്ഠിതമായ വിദ്യാഭ്യാസം നമ്മളെ സ്കൂളിൽ കൊണ്ടുവരികയാണെങ്കിൽ കുട്ടികൾക്ക് സ്കൂളിൽ പോകുവാനും ഓരോരോ കാര്യങ്ങൾ ചെയ്യാനും അവർ അതിന്റകത്ത് മികവ് തെളിയിക്കാനും നമുക്ക് സാധിക്കും അവർക്ക് ഓരോ ഓരോ അവരെ കഴിവുകൾ എന്താണെന്ന് മനസ്സിലാക്കി അങ്ങനെയൊരു തൊഴിൽ അധിഷ്ഠിതമായ ആ വിദ്യാഭ്യാസമാണ് അവർക്ക് നൽകേണ്ടത് പിന്നെ അവര് അത് വീട്ടിൽ കൊണ്ടുപോയി ചെയ് ചെയ് ചെയ്യുന്നതോടൊപ്പം അവർക്ക് വേണിക്ക സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് ഈ ഒരു കാര്യംകൊണ്ട് അവര് വീട്ടിൽ വീട്ടുകാർക്ക് ഒരു ഉപകാരമായി മാറും കോഴിനെയൊക്കെ സ്കൂളിൽ നിന്ന് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് വീട്ടുകാർക്ക് വളരെയധികം ലാഭമാണ് അവർക്ക് അതിൻ്റെ മുട്ടകളൊക്കെ വിറ്റ് ഒരു കൈത്താങ്ങ്പോലെ അവർക്ക് വേണെങ്കിൽ ഈയൊരു ജീവിത അവരുടെ ജീവിതസാഹചര്യം കുറച്ചൊക്കെ മാറാൻ സാധിക്കുന്നതാണ്